രാജേഷേട്ടാ പിന്നെ നമുക്ക് വീട്ടിൽ ഒരു ആ അത് പറയാൻ വേണ്ടി ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഓക്കെ ഓക്കെ നമുക്ക് വീട് വെക്കുന്നുണ്ട് ഇപ്പൊൾ ആ ആ ഓക്കെ തെങ്ങ് ഒന്നും വെയ്ക്കാൻ പറ്റില്ല ഏട്ടാ നമുക്ക് മുകളിൽ വെക്കാം മുകളിൽ വെക്കാം പട്ട വെക്കാം പട്ട പ്രശ്നം ഇല്ല തെങ്ങ് വയ്ക്കുന്നതിനേക്കാൾ നല്ല പട്ട വയ്ക്കുന്നതാണ് എളുപ്പം ആ ആ ആ അത് കുഴപ്പം ഇല്ല മുകളില് മുകളിൽ അത്ര സാധനം ഒന്നും ഇല്ല മുകളിൽ പോയി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് സിഗ്നല് കാര്യങ്ങൾ ഒക്ക കിട്ടും പ്രശ്നം ഒന്നും ഇല്ല അത് ആ ആ എത്രയാണ് അത് എന്നാ അത് നീളം എത്താത്തതുകൊണ്ടാണൊ അല്ല ഞാൻ അതാ ചോദിച്ചത് അപ്പം അന്ന് ഇവര് കേബിളും സാധനങ്ങൾ ഒക്ക തന്നിട്ട് ഡിഷിൻ്റെ സാധനങ്ങൾ ഒക്ക തന്നിട്ട് പോകുമ്പോൾ ഇത് കേബിൾ അഥവാ കൂടുതല് വേണമെങ്കിൽ അവര് കൊണ്ട് വരുമെന്നാണ് പറഞ്ഞത് അപ്പം അതിൻ്റ പൈസയുടെ കാര്യം ഒന്നും പറഞ്ഞില്ല

ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ കുഴപ്പം ഇല്ല ഇപ്പം എത്ര ആവും എല്ലാം കൂടി ആയിരത്തി ഇരുന്നൂറോ അത് എന്തിനാ ഇത്ര ഒക്കെ നാനൂറ് രൂപ മറ്റെ ഈ കേബിളിന് ഇപ്പം എത്രയാ എണ്ണൂറോ അതിന് ചെറുത് എടുത്താൽ പോരെ എന്നാൽ നമുക്ക് ഇപ്പം അത്രേയും വേണ്ട രണ്ട് മീറ്റർ അല്ലെ വേണ്ടൂ ആയിക്കോട്ടെ ഇപ്പം അല്ലാണ്ട് ഇപ്പം ഞാൻ എന്താ പറയുക ആ സിറ്റിയാ സിറ്റിയാ കുഴപ്പം ഒന്നും ഇല്ല ഇനി ഇപ്പൊൾ അത് തന്നെ ആവട്ടെ ആ ഇത് ഇപ്പൊൾ ഈ മഴ വരുമ്പോഴെ സിഗ്നല് ബ്രേക്ക് ആകുമൊ അതെ അല്ലെ ഓക്കെ ആ ആ ആ ആ ആ ഇപ്പം പിന്നെ ഏത് നേരത്താ മഴ ഏത് നേരത്താ വെയിലെന്ന് പറയാൻ പറ്റില്ലല്ലൊ ട്രീ ഒരു രണ്ട് ചെയ്തിട്ടുണ്ടല്ലൊ ചെയ്തു ചെയ്തു അത് ഇരുന്നൂറ്റി അമ്പതിൻ്റ ഇരുന്നൂറ്റി എൺപത് അങ്ങനെ എന്തോ ഒര് പ്ലാനാണ് ചെയ്തത് മലയാളം ഉണ്ട് പിന്നെ ഏതൊക്കെയോ സ്പോർട്സ് ചാനലും കിട്ടുമെന്നാണ് അവര് പറഞ്ഞത്

ആ ഓക്കെ എന്നാ കണക്ട് ചെയ്തോളൂ ഞാൻ താഴത്ത് ഉണ്ടാവും താഴത്തും ഞാൻ എന്തേലും ചെയ്തേരണ്ട ചെയ്യണന്ന് ഉണ്ടോ അതെ അല്ലെ ഓക്കെ ഓ എന്നാ ആ എന്നാ എന്നാ ഒന്ന് ഞാൻ അവിടുന്ന് നിന്ന് വിളിച്ച് കഴിഞ്ഞാൽ ചാനല് വന്നില്ലെങ്കിൽ പറയാം കണക്ട് ചെയ്താൽ ഒന്ന് പറഞ്ഞാൽ മതി ഞാൻ താഴത്തേക്ക് പോകുവാ ശരി ശരി ആയിക്കോട്ടെ ആ ശരി ഞാൻ നോക്കാട്ടോ നോക്കട്ടെ നോക്കട്ടെ ശരി ശരി ശരി